കേരളത്തിലെ വിനോദ രംഗത്തിൽ ഈ വർഷങ്ങൾ കൊണ്ട് ഒരുപാട് അധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാലത്തിൻ്റെ വിത്യാസങ്ങൾ അനുസരിച്ച് നമ്മുടെ എൻ്റെർടൈൻമെൻ്റ് അല്ലെങ്കിൽ വിനോദത്തിൽ പല പല വിനോദത്തിനായി പല പല കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ പുതിയതായി ഇമ്പ്ലിമെൻ്റ് ആവുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഒരുപാട് അധികം ഷോപ്പിംഗ് മാളുകളും വളരെ അധികം കോളിറ്റി ഉള്ള സിനിമ തീയേറ്ററുകളും അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് അധികം എൻ്റെർടൈ ൻമെൻ്റിനുള്ള സ്പെസുകളും ഇപ്പം കേരളത്തിൽ വളരെ അധികമായിട്ട് ഓപ്പണാവുന്നുണ്ട് ടൂറിസ്റ്റുകൾക്കും നാട്ടിലുള്ള ആൾക്കാർക്കും തന്നെ എൻ്റർടൈൻമെൻ്റിൻ്റെ ഭാഗങ്ങളായിട്ട് ഹൗസ് ബോട്ടുകളും അതെപോലെ തന്നെ റിസോർട്ടുകളും ഒക്കെ വളരെ വളരെ നല്ല ലൊക്കേഷൻസിൽ കാണാൻ വളരെയും മനോഹരമായ കുറേ കുറേ ലൊക്കേഷൻസലുകൾ കേരളത്തിലിപ്പോൾ തുറക്കപ്പെട്ടിട്ടുണ്ട് അതെപോലെ തന്നെ ടെക്നോളജി വൈസും ഗെയിമിംഗ് വൈസും ഒക്കെ എൻ്റെർടൈൻമെൻ്റിന് പറ്റിയ സ്ഥലങ്ങള നമ്മുടെ കൊച്ചിയിൽ ഇഷ്ട്ടം പോലെ വന്നിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഇത്ര ടൈമിനായിട്ട് ഗെയിം കളിക്കാനായിട്ടുള്ള സ്പേസുകൾ ടെർഫുകൾ സ്വിമ്മിങ്ങിനായിട്ടുള്ള ടെർഫുകൾ ഫുടബോൾ ക്രിക്കറ്റും കളിക്കാനുള്ള ടെർഫുകൾ സൊ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെർടൈൻമെൻ്റിന് അല്ലെങ്കിൽ വിനോദത്തിനായിട്ട് നമ്മുടെ കേരളത്തിൽ ഈ കാലയളവിനുള്ളിൽ അത് ഒരുപാട് അധികം കാര്യങ്ങൾ വന്നട്ടുണ്ട് അത് ഒരുപാട് അധികം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ എല്ലാവരും വളരെ എൻ്റെർടൈനായി നിൽക്കാൻ ആയിട്ട് ഒരുപാട് അധികം പരിപാടികളും കാര്യങ്ങളും ആൾക്കാർ ഗവൺമെൻ്റും പരിപാടികൾ ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്നുമുണ്ട്